പണ്ട് ഡിജിറ്റൽ ഗെയിംസ് സാങ്കേതിക വിദ്യ അത്രയും പുരോഗതിയില്ലാത്ത ഫോൺ ആരുടെയും ഇല്ലാത്ത സമയത്ത് എല്ലാവരും പുറത്ത് ഇറങ്ങി കളിക്കും ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആളുകൾ പരസ്പരം പിള്ളേരാണെങ്കിലും വളർന്നു വരുന്നതിന് അനുസരിച്ചല്ലേ എല്ലാവരും ഇടപഴുകുന്ന രീതിയൊക്കെ മാറുന്നത് പുറത്തിറങ്ങി എല്ലാവരേയും കണ്ടു അവരുമായിട്ട് ഇടപെട്ടാൽ അല്ലേ അവർ വലുതാവുമ്പോൾ അതുപോലെ ആവുകയുള്ളു പുറത്ത് ഇറങ്ങി പണ്ട് എല്ലാവരും പുറത്ത് ഇറങ്ങി കളിക്കുമായിരുന്നു എല്ലാവരും വരുന്നു അവരുടെ വിശേഷങ്ങൾ പറയുന്നു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാകുന്നു എല്ലാ തോൽവിയേയും ജയത്തേയും ആസ്വദിക്കാ നുള്ള ശക്തി എല്ലാവർക്കും ലഭിക്കുന്നു ചെറിയ ചെറിയ തോൽവിയാണെങ്കിലും പിന്നെ വാശിയോടെ കളിക്കാനും എല്ലാം സാധിക്കുന്നു ഇന്ന് ആരും

വളരെ ഒതുങ്ങി പോയിരിക്കുന്നു ഇൻട്രോവേർട്ടുകൾ കൂടുതലായി ഉണ്ടാകാൻ തുടങ്ങുന്നു അങ്ങനെ ഇപ്പോൾ നേരത്തെ പുറത്ത് ഇറങ്ങുന്നു ണ്ട് എല്ലാരും വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു ലൈഫ് ആയിരുന്നത് എല്ലാവരെയും കണ്ട് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഒരു സമയമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എല്ലാം ഡിജിറ്റൽ ഗെയിംസ് ആയത് കൊണ്ട് എല്ലാവരും വീട്ടിൽ ഇരുന്ന് തന്നെ കളിക്കുന്നു പുറത്ത് ഇറങ്ങുന്നില്ല പുറത്ത് ആൾക്കാരെ കാണുന്നില്ല എന്താണ് ലോകത്ത് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല അങ്ങനെ ഇടപെഴകാൻ എല്ലാവർക്കും ഒരു മടിയായി വരുന്നു അത് നമ്മുടെ മൈൻ്റ്സെറ്റിനെ തന്നെ മാറ്റിയെടുക്കുന്നു ബ്രെയിൻ സെല്ല് നശിക്കാൻ കാരണമാകുന്നു കണ്ണ് കണ്ണിന് പ്രോബ്ലം ഉണ്ടാകുന്നു പുറത്തിറങ്ങി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും വാശി ഉണ്ടാവുന്നില്ല പിന്നെ ചെറിയ ചെറിയ തോൽവിയാണെങ്കിൽ പോലും നേരിടാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല പെട്ടെന്ന് ഡെസ്പായി പോകുന്നു പെട്ടെന്ന് തളർന്നു പോകുന്നു ഒരു ഗെയിം പോയാൽ പിന്നെ ഇല്ല എന്നൊരു ചിന്തയിലേക്ക് ആത്മഹത്യലേകൊക്കെ കൂടുതൽ വരുന്നു പിന്നെ വാശിയോടെ ഒരു ടീം ടീം ടീം സ്പിരിറ്റ് ഒന്നുമില്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ടീം സ്പിരിറ്റ് ഒന്ന് എല്ലാം വളരെ കുറഞ്ഞു വരുന്നു അത് കുറേകൂടെ ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു പണ്ട് കൊറോണയായിരുന്നപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത ഒരു ടൈമിൽ തുടങ്ങിയ ഒരു ട്രെൻഡാണ് പിന്നെ അത് അങ്ങോട്ട് മാറാതെയും എല്ലാവരുടെയും ഇടയിൽ അങ്ങ് വ്യാപിച്ചിരിക്കുന്നു അത് മാറണം അത് ശരിയല്ല